ഹലോ ഹലോ ആ എസ് മാം ഇത് ജനേഷ് സൂപ്പർമാർക്കറ്റ് ആയിരുന്നു ആ വെജിറ്റബിൾസിനൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല ഓഫർ ഉണ്ട് അതേപോലെ തന്നെ സോപ്പ് പൊടിക്ക് ഉണ്ട് പിന്നെ ബാത്റൂം ഐറ്റംസ് ഉണ്ടല്ലോ ഹാർപിക് പിന്നെ ലൈസോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല ഹോ ഓഫർ ഉണ്ട് അതായത് ഒരു ബോട്ടിലിന് രണ്ട് ബോട്ടിൽ ഫ്രീ അങ്ങനെ ഉള്ളൊരു ഇതുണ്ട് ഇന്ന്

അരിക്ക് കുറുവ അരിക്കുണ്ട് മട്ട അരിക്കുണ്ട് വൈറ്റ് ആൻഡ് വൈറ്റിന് ഒന്നും ഇല്ല ഇതിന് രണ്ടിനും ഓഫർ ഉണ്ട് കുറച്ചൊരു വ്യത്യാസം ആ വില കുറവുണ്ട് ഇപ്പം സൺഡേ വെനസ്ഡേ അത്രയേ ഉള്ളൂ ആഴ്ചയിൽ രണ്ട് ദിവസം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ആണ് കുറച്ച് കൂടുതൽ പർച്ചേസ് ചെയ്യാം നമുക്ക് അല്ലെങ്കിൽ കുഴപ്പം ഇല്ല ഇവിടെ രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപേൻറെ ഒരു കാർഡ് ഉണ്ട് അത് എടുക്കുവാണെങ്കിൽ നമുക്ക് അത് കാട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പത്ത് കിലോ സോപ്പ് പൊടി അങ്ങനെ ഒക്കെ ഉള്ളത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇപ്പം ഏരിയൽ ആണല്ലോ കൂടുതൽ ആൾക്കാരും വാഷിംഗ് മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്നവർ ഫുൾ അങ്ങനെ ഉള്ളതൊക്കെയാണല്ലോ കൊണ്ട് പോകുന്നത് അപ്പം അതിനൊക്കെ നല്ല കോംബോ ഓഫർ ഉണ്ട് അതുപോലെ വെജിറ്റബിൾസിന് ഉണ്ട് അതാകുമ്പം നമുക്ക് നമ്മുടെ അൺലിമിറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റുവല്ലോ കുറച്ച് കൂടുതൽ സാധനവും എടുക്കാൻ പറ്റുവല്ലോ പൈസയ്ക്ക് മാറ്റം വരും അപ്പം

അത് അറുപത് തൊട്ടിട്ട് നൂറ്റി അമ്പത് വരെ വരെയുള്ള അരികളുണ്ട് കുഴപ്പം ഇല്ല മാം നല്ലതാണ് അപ്പം നമുക്ക് ഒരു നൂറ് രൂപേന്റെ ഒക്കെ എടുക്കാം അതാകുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും